ആ ഓക്കെ ആ ഓക്കെ നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ് നോർമൽ വണ്ടി തൊട്ട് ലക്ഷ്വറി വെഹിക്കിൾസ് വരെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് സാർ അതിപ്പോൾ ഒരു ടു തൗസന്റ് ഒക്കെ വരും സർ പെർ ഡേ ആ എണ്ണ ഇപ്പോൾ നമ്മൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല വണ്ടി എടുക്കുമ്പോൾ ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഒക്കെ അതിനകത്ത് ഉണ്ടാവും പിന്നെ അതിനനുസരിച്ച് നിങ്ങൾ പോവുമ്പോൾ ബാക്കി എത്ര ലോങ്ങ് ആണോ അതിനനുസരിച്ച് നിങ്ങൾ എണ്ണ അടിക്കേണ്ടി വരും

ഹെൽമെറ്റ് നമ്മൾ തരുന്നതിന് വലിയ ക്വാളിറ്റി ഒന്നും സാർ പ്രതീക്ഷിക്കരുത് നമുക്കിപ്പോൾ ഉള്ള സ്റ്റോക്കിൽ ഉള്ളതെന്ന് പറയുമ്പോൾ ഐ എസ് ഐ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് എന്നാലും ഫുൾ സൈസ് ആയിരിക്കില്ല നോർമൽ ഹെൽമെറ്റ് ആയിരിക്കും

പ്രൂഫ് സാറിൻ്റെ ഐ ഡി കാർഡ് അതായത് ലൈസൻസോ ആധാറോ അങ്ങനെ എന്തെങ്കിലും മതി ലൈസൻസ് മസ്റ്റ് ആണ് അത് മാത്രം മതിയാവും

ഇല്ല നിങ്ങളുടെ ലൈസൻസിൻ്റെ ഒറിജിനൽ മതി സർ ലൈസൻസ് മാത്രം ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല കാരണം നിങ്ങളുടെ എന്തെങ്കിലും പ്രൂഫ് ആയിട്ടേ നമുക്ക് വേണ്ടുള്ളൂ ഐ ഡി കാർഡ് പോലെ ലൈസൻസ് നമുക്ക് ഓൾറെഡി ഐ ഡി പ്രൂഫ് ആയിട്ട് കൂട്ടാമല്ലോ അപ്പോൾ അത് അതായാലും മതി മ് അല്ല വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് കേരളത്തിൽ എല്ലായിടത്തും തന്നെ നമ്മുടെ ഷോപ്പ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അടുത്തുനിന്ന് തന്നെ പെട്ടെന്ന് തന്നെ അടുത്ത വണ്ടി പ്രൊ പ്രൊഡ്യൂസ് ചെയ്യും നിങ്ങൾക്ക് എത്തിച്ച് തരും ആ ആക്സിഡന്റ് ഒക്കെ വന്ന് കഴിഞ്ഞാൽ സാറേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന മിസ്റ്റേക്ക് ആയിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾ തന്നെ അത് ചെയ്ത് തരേണ്ടി വരും ആ

ആ ഓക്കെ സാർ ബുക്ക് ഒന്നും ചെയ്യേണ്ട സാർ കാരണം നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും അവൈലബിൾ ആണ് എല്ലാം അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ് ആ ആ ഓക്കെ ഓക്കെ സാർ വന്നാൽ മതി നമുക്ക് അത് ചെയ്ത് തരാൻ പറ്റും ആയിക്കോട്ടെ ശരി സാർ